വീട്ടുമുറ്റത്തേക്കാണ് പൂന്തോട്ടത്തിലേക്കോ പക്ഷികളെ ആകർഷിക്കുന്നതിന് നമ്മള് ഒരുപാട് ചെടികള് നട്ട് വളർത്തുക അപ്പം ആ ചെടികളൊക്കെ കാണുമ്പോൾ അതിലെ തേൻ കുടിക്കാനായിട്ട് പക്ഷികൾ വരും പക്ഷികള് എന്ന് പറഞ്ഞാൽ തുമ്പി പൂമ്പാറ്റ ഒക്കെ വരാറുണ്ട് തുമ്പികൾ അങ്ങനെ വരാറില്ല പൂമ്പാറ്റകളാണ് ഈ പൂവിലെ തേൻ കുടിക്കാനും ഈ വാഴ വഴിയില് വാഴ പഴത്തിൽ ഇണ്ടാകുന്ന ആ ഒരു പൂവിലെ തേൻ കുടിക്കാനൊക്കെ വരാറുണ്ട് ഈ പൂമ്പാറ്റകള് വവ്വാൽ ആണെങ്കിൽ തന്നെ അങ്ങനെ തേൻ കുടിക്കാനൊക്കെ വരാറുണ്ട് അതിന് നമ്മള് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലോണം പൂചെടികള് നട്ട് പിടിപ്പിക്കുക പിന്നെ അവർക്ക് ആയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കൊറച്ച് വെള്ളം വെച്ച് കൊടുക്കുക ഒരു പാത്രത്തിൽ ധാന്യം അതായത് അരിമണികളൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അവര് ഒരു പ്രാവിശ്യം വന്ന് കണ്ടാല് അവർക്ക് അവരൊന്ന് വെള്ളം കുടിച്ച് നോക്കിയാലും അരിമണികള് ധാന്യങ്ങള് കഴിച്ചൊക്കെ നോക്കിയാല് പിന്നീട് അവര് എടക്ക് എടക്ക് വരും അവിടെ ഇന്ന അരിയും സാധങ്ങളൊക്കെയുണ്ട് നമുക്ക് പോയിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് അവരുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് വരുവൊക്കെ ചെയ്യും അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പിന്നെ പക്ഷികളെ ആകർഷിക്കാനൊക്കെ പറ്റും